ആ ഹലോ രാമൻ ചേട്ടാ കഴിഞ്ഞ ദിവസം ഞാനാ ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര ചെയ്തപ്പഴ് തിടുക്കത്തില് ഇറങ്ങി പോയപ്പഴേ ആ ഫോണ് അതിനകത്തില് വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു അത് അതിനകത്തില് ഉണ്ടോ എന്ന് പരിശോധിക്കുമോ ഒന്ന് വിശദമായിട്ട് എന്നെ ഒന്ന് അറിയിക്കുമോ അത് കൈവശം പെട്ടതായിട്ട് അതിനകത്തിലാണെന്നാണ് എൻ്റെയൊരു ബോധ്യം അതുകൊണ്ടാണ് കേട്ടോ അതൊന്നറിയിക്കണേ ദയവായിട്ട്